നമ്മുടെ വാ ദുഃഖത്തിന്റെ പാനപാത്രം എന്റെ കയ്യിൽത്തന്നാൽ സന്തോഷത്തോടത് വാങ്ങീ ഞാൻ ഹാലെ ലൂയ പാടും ആ ദുഃഖത്തിന്റെ പാനപാത്രം മുഴുവൻ കുടിച്ചവളാണ് ഈ വ്യക്തി കർത്താവെ ഇഷ്ടം പോലെ ദുഃഖം അനുഭവിച്ച് ദൈവത്തെ ഏതു നേരവും മുറുകെപ്പിടിച്ച് ദൈവത്തെ വിളിച്ചു പ്രാർത്ഥന അത് എന്നും ഉരുവിട്ടു കൊണ്ടു നടന്ന് ആ ദൈവത്തിനിപ്പം നന്നിന്ന നന്ദി ദൈവമെ നന്ദി ദൈവമേ എന്നുള്ള പാട്ടു കൊണ്ട് ദൈവത്തോടു നന്ദി പറഞ്ഞു കൊണ്ടിരിയ്ക്കയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നു തന്നെ ഇന്ന് ഈ നിലവരെ എത്തിച്ച തമ്പുരാന് ഒത്തിരി നന്ദി പറഞ്ഞു നന്ദി പറയുന്നുണ്ട് നന്ദി പറയാതെ ഒരു ദിവസം പോലും നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കത്തില്ല പിന്നെ ദൈവത്തിനു നന്ദി പറയുക എല്ലാം സൃഷ്ടിച്ച നല്ലവനായ ദൈവത്തിനു നന്ദി പറയുക മഴയും മഞ്ഞും താരകളെ ചൂട് കാറ്റെ എരി തീയെ ഇതെല്ലാം തന്ന ആ നല്ലവനായ ദൈവത്തിനു നന്ദി പറയാം നമ്മളെ അനുദിനം കാത്തു പരിപാലിക്കുന്ന നമുക്ക് വെളിച്ചം തരുന്ന സൂര്യനും ചന്ദ്രനും എല്ലാവരെയും ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ആ ദൈവത്തെ നമുക്ക് കൂടുതലായിട്ട് സ്നേഹിക്കാം ദൈവത്തിലാഴമുള്ള ദൈവത്തിൽ വിശ്വാസമുള്ളവരായിട്ട് മുന്നോട്ടു വർത്തിയ്ക്കാം ഒത്തിരി പാട്ടിലൂടെ ദൈവത്തെ കൂടുതലായിട്ടു പാടുന്ന സ്വീകരിക്കുന്നവരുണ്ട് പാട്ടു പാടി ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട് അത്രയ്ക്കു പാട്ടു പാടാനൊന്നും എനിയ്ക്കറിയില്ല എങ്കിലും നമ്മുടെ രണ്ടോ മൂന്നോ വരി പാടി നമുക്ക് ദൈവത്തിലാശ്രയിക്കാം ദൈവീകമായി ചൈതന്യത്തിലൂടെ മുന്നോട്ട് പോകാം